ഏതൊരു കാര്യം എടുത്താലും അതിനൊരു ഗുണവും ദോഷവും കാണും അതുപോലെത്തന്നെയാണ് ഷെയർ മാർക്കറ്റിൻ്റെ കാര്യത്തിലും ഓഹരികൾ മ്യൂച്ചൽ ഫണ്ട്കൾ മുതൽ പി എഫ് എഫ് ഡി അഥവാ ആർ ഡി കൾ തുടങ്ങിയ നിരവധി നിക്ഷേപ ഓപ്ഷന്കൾ ഇന്ന് ലഭ്യമാണ് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന വരുമാനം നൽകുന്ന നിക്ഷേപ ഓപ്ഷൻ ഓഹരികളാണ് എന്നാൽ ഉയർന്ന വരുമാനം ഉയർന്ന അപകട സാധ്യതയോടെയാണ് വരുന്നത് നമ്മൾ ആരും അത് അറിയുന്നില്ല ഇത് ആരെങ്കിലും നമ്മൾ പരസ്യങ്ങൾ കാണുന്നതിലൂടെയും മറ്റും ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയും എന്നാൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത് നമ്മളാരും അറിയുന്നില്ല അതിന് മുമ്പെ അപകടങ്ങൾ അറിയാതെ നമ്മൾ ആ കുഴികളിലേക്ക് എടുത്തു ചാടുന്നു അതിനാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് ദിവസങ്ങൾ എടുത്തെങ്കിലും അത് ആലോചിച്ച് അതിന് വേണ്ട ശരിയായ നടപടികൾ നമ്മൾ എടുക്കണം സാധാരണഗതിയിൽ നിക്ഷേപകർ അനിശ്ചിതത്വത്തിൽനിന്ന് വിട്ട് നിൽക്കാനും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാനും ഇഷ്ടപ്പെടുന്നു ഈ പരിഭ്രാന്തി പിന്നീട് തെറ്റുകൾ സൃഷ്ടിക്കുന്നു അസ്ഥിരമായ ഒരു വിപണിയിൽ തെറ്റുകൾ എളുപ്പത്തിൽ നഷ്ടത്തിലേയ്ക്ക് വിവർത്തനം ചെയ്യപ്പെടും അതിനാൽ ഷെയർ മാർക്കറ്റ് നിക്ഷേപത്തിൻ്റെ പോരായ്മകൾ എങ്ങനെ മറികടക്കാമെന്ന് നിക്ഷേപകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും എങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നും ഉണ്ട് പലരുടെ അടുത്തും നമ്മൾ അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് നിക്ഷേപണത്തിൻ്റെ ചില നേട്ടങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ബാങ്ക് എഫ് ഡി കൾ അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടുകൾ തുടങ്ങിയ മറ്റ് നിക്ഷേപ മാർഗങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുന്ന വരുമാനം സൃഷ്ടിക്കാൻ ഇതിന് കഴിവുണ്ട് എന്നതാണ് പിന്നീട് കമ്പിനിയുടെ ഉടമസ്ഥാവകാശം ഇപ്പം നമ്മളൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പിനിയിടെ ഓഹരികൾ വാങ്ങുമ്പോൾ നമ്മളുടെ ഷെയർ സൈസ് എത്ര ചെറുതാണെങ്കിലും അത് കമ്പിനിയുടെ മേൽ നമുക്ക് അനുവാദിതമായ നിയന്ത്രണം നൽകുന്നു ഷെയറ്കൾടെ ഈ ഉടമസ്ഥത നമുക്ക് വോട്ടിംഗ് അവകാശം നൽകുകയും നമ്മൾക്ക് ഡിവിഡൻ ബോണസ്സ് മുതലായവ ലഭിക്കുകയും ചെയ്യുന്നു പിന്നെ ഉയർന്ന ദ്രവ്യത ഇത് ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് ഈ ഷെയർ മാർക്കറ്റ് പിന്നെ നമ്മുടെ അവകാശങ്ങൾ സെബി നന്നായി സംരക്ഷിക്കുന്നു അത് നന്നായി നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ഇതെല്ലാം അതിൻ്റെ ഗുണങ്ങളാണ് പിന്നെ നികുതി ആനുകൂല്യങ്ങൾ ഈ ദീർഘകാല മൂല്യധന നേട്ടം അതായത് പന്ത്രണ്ട് മാസത്തിൽ കൂടുതലുള്ള നിക്ഷേപകർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രം പത്ത് ശതമാനം നികുകിതിയാണ് ആകുന്നത് പിന്നെ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അതുപോലെത്തന്നെ ഇതിന് ഷെയർ മാർക്കറ്റ് നിക്ഷേപണത്തിന് ദോഷങ്ങളും ഉണ്ട് അസ്ഥിരത ഒരു കാര്യമാണ് ഈ ദോഷത്തിൻ്റെ ഒരു കാര്യമാണ് അസ്ഥിരത ഓഹരി വിപണിയിൽ നിക്ഷേപം അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു കാരണം വിപണികൾ അസ്ഥിരവും ഓഹരികൾക്ക് ചാഞ്ചാട്ടം സംഭവിക്കുകയും ലോവർ സർക്യൂട്ട്കളെ ബാധിക്കുകയും ചെയ്യും പിന്നെ റിസ്ക് സാമ്പത്തിക വിപണികളുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ മൂലം ഒരു നിക്ഷേപകന് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് റിസ്ക് അപകട സാധ്യതകൾ രണ്ട് തരത്തിലാണ് വ്യവസ്ഥാ വിധി വ്യവസ്ഥാപിത അപകട സാധ്യതയും ഉണ്ട് അതുപോലെത്തന്നെ വ്യവസ്ഥാപിതമല്ലാത്ത അപകട സാധ്യതയും ഉണ്ട് പിന്നെ ഈ സ്റ്റോക്ക് പിന്നെ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഫോൾഡർമാർ അവസാനമായി പണം നൽകുന്നതാണ് ഒരു കമ്പിനി അടച്ച് പൂട്ടുമ്പോൾ കമ്പിനിയിടെ ബോണ്ട് ഫോൾഡർമാർക്കും കടക്കാർക്കും ആദ്യം പണം ലഭിക്കുന്നത് ഷേർ ഹോൾഡർമാരാണ് ആദ്യം പണം ലഭിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് ദോഷകരമായിട്ടും ഉണ്ട് പിന്നെ ഇത് അപ്പം ഈ ഷെയർ മാർക്കറ്റിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അതിന് എല്ലാ കാര്യങ്ങളെയും പോലെത്തന്നെ അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഇഷ്ടംപോലെ ഉണ്ട് അപ്പം നമ്മൾ തീരുമാനിക്കുന്നത് അനുസരിച്ച് ഇരിക്കും നമുക്കത് ദോഷമാണോ ചെയ്യാൻ പോകുന്നത് ഗുണമാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവ്വം അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ നിഘണ്ടു എല്ലാം വായിച്ച് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പണം അതിൽ നിക്ഷേപിക്കാനും ശ്രദ്ധിക്കുക